ഹലോ ഇത് ട്രാൻസ്പോർട്ട് ഏജൻസിയല്ലേ ഞാൻ അൻ അങ്കമാലി മങ്ങാട്ടുകര മങ്ങാട്ടുകാരയിൽ നിന്നാണ് ജയന്തിയാണ് വിളിക്കുന്നത് ഞാന് എനിക്ക് ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ഞാൻ നിങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ഒരു കാറു ബുക്ക് ചെയ്യ്തിരുന്നു എനിക്ക് ആ കാറു ഞാൻ പറഞ്ഞത് എട്ട് മണിക്ക് വരാനാണ് പറഞ്ഞത് എനിക്ക് ട്രെയിനിൻ്റെ സമയം എട്ടരക്കാണ് പക്ഷേ ആ കാറുകാരൻ വന്നത് വൈകിയാണ് വന്നത് പഷെ ഞാന് കാർ വന്ന് പോയി അവിടെ ചെന്നപ്പഴേക്കും എൻ്റെ ട്രെയിൻ പോയി അപ്പോൾ എനിക്ക് എൻറ്റെ ട്രെയിനിൻ്റെ പൈസ നഷ്ട്ടമായി എനിക്ക് പോകാനും പറ്റിയില്ല പക്ഷേ നിങ്ങള് നിങ്ങളുടെ ഡ്രൈവറോട് എന്താ അങ്ങനെ വൈകിയത് നിങ്ങളത് ഏജൻസി അത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരവാദിത്തപെട്ട് ഒരാള് നമ്മള് ഇത്ര സമയം വണ്ടി പോകണം എന്നുപറഞ്ഞ് അത് എന്തായാലും നമ്മള് ഒരു വഴിക്ക് പോകാനുള്ള വണ്ടി ബുക്ക് ചെയ്യ്തത് അപ്പോൾ നമ്മളത് കൃത്യമായി ആ സമയം എത്തിക്കേണ്ടത് നിങ്ങളുടെ ഏജൻസിയുടെ ചുമതലയാണ് അപ്പോൾ എനിക്ക് ഏജൻസിയിൽ നിന്ന് ഞാൻ അത് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ബുക്ക് എൻ്റെ ട്രെയിനിൻ്റെ പൈസ എന്തായാലും പോയി അതുപോയി പക്ഷേ എനിക്ക് കാറിന് ഞാൻ എടുത്തു ബുക്ക് അടച്ച പൈസ എനിക്ക് തരാണ്ട് പറ്റില്ല കാരണം നിങ്ങളുടെ നിങ്ങ രണ്ട് പൈസയും നഷ്ട്ടപെടാൻ എനിക്ക് താത്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പൈസ നിങ്ങൾ എനിക്ക് എത്തിച്ച് എൻറ്റെ ഞാൻ അടച്ച പൈസ എനിക്ക് തരേണ്ടതാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ പരാതിപ്പെടുന്നതായിരിക്കും